പഴയ ഗാനങ്ങളാണ് കൂടുതൽ എപ്പോഴും മൻ മനസ്സിനെ ഇഷ്ട്ടപ്പെടുന്ന തരത്തിൽ ഉള്ളത് കാരണം പഴയ ക് ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും മെലഡി ആയിരിക്കും അതുപോലെ അതിൻ്റെ വരികൾക്ക് നല്ല മീനിംഗ്ഫുള്ളും ആയിരിക്കും അപ്പോൾ നമുക്ക് എത്ര തവണ കേട്ടുകഴിഞ്ഞാലും അത് ചെവികൾക്ക് മാധുര്യം നൽകുന്നതാണ് പ്രത്യേകിച്ച് പഴയകാല മലയാള സിനി മലയാള ഗാനങ്ങൾ സിനിമ ഗാനങ്ങൾ നമുക്ക് കൂടുതൽ നമുക്ക് കേൾക്കാനും എത്ര തവണ കേട്ടാലും നമ്മളെ മടുപ്പിക്കാ മടുപ്പിക്കില്ല അ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ മൂഡ് നമ്മുടെ മെൻറൽ മൂഡ് ഒക്കെ നല്ല ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും മ്യൂസിക് തെറാപ്പി വരെ ഉണ്ടല്ലോ അതിനൊക്കെ നല്ല രീതിയിൽ ഉപകരിക്കുന്നതാണ് ഈ പഴയ ഗാന പഴയ ഗാനങ്ങൾ അതുപോലെ അതിൻ്റെ വരികളുടെ മീനിംഗും അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും ഒക്കെ നമുക്ക് കൂടുതലും നമ്മളെ ഒരു ആ ഒരു മ്യൂസിക്കിൻറെ ഒരു ആഴത്തിലോട്ട് നമ്മളെ കൊണ്ടുചെല്ലും പുതിയ കാല പാട്ടുകൾ എന്ന് പറയുമ്പോൾ പുതിയകാല ഗാനങ്ങൾ കൂടുതലും ഹിപ്കോ ഹിപ് ഹോപ്പ് മ്യൂസിക് ഒക്കെയാണ് അത് കൂടുതലും എന്താണ് പറയുക എനർജെറ്റിക് ഗാനങ്ങളാണ് അതാണ് പുതിയ തലമുറയിൽ കൂടുതലായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെയുള്ള ഗാനങ്ങൾ വരുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഇത് കൂടുതലാണ് അതുപോലെ നമ്മുടെ മൈൻഡ് ഫ്രീ ആകും ഹിപ്കോ നല്ല ഹൈ പിച്ച് നല്ല സൗ ഹൈ വോളിയം സൗ സൗണ്ടിലും അതുപോലെ ഹൈ മ്യൂസിക്കിലും ആണത് ചെയ്യുന്നത് അതുപോലെ ബാൻഡുകളൊക്കെ ഇപ്പോൾ വളരെയധികം കോമൺ ആണ് അതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത് കൊറിയൻ ബാൻഡുകൾക്കാണ് ബി ടി എസിൻ്റെ അവരുടെ ഒക്കെ സോങ്ങ് കൂടുതലും എനർജെറ്റിക് ആണ് അതുപോലെ നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഡാൻസ് കളിക്കാൻ തോന്നുന്ന തരത്തിൽ ഉള്ള അങ്ങനത്തെ പാട്ടുകളാണ് അതും നമുക്ക് എന്ജോയബിൾ ആണ് വെൻ നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഒക്കെ ആയിരിക്കുമ്പം നമുക്കത് നല്ല രീതിക്ക് ആസ്വദിക്കാനായിട്ട്